വീട്ടുമുറ്റത്തെക്കും പൂന്തോട്ടത്തിലേക്കൊക്കേ പക്ഷികളെ ആകർഷിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്ക് കൃത്യമായി ഭക്ഷണം എറിഞ്ഞു കൊടുക്കാനുള്ള അല്ലെങ്കിൽ തീറ്റ കൊടുക്കാനോ വെള്ളം കൊടുക്കാൻ ഒക്കെയുള്ള എന്തെങ്കിലും രീതികള് നമ്മള് സ്ഥിരം അവലംബിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായത് മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ വീട്ടുമുറ്റത്ത്ന്ന് ഈ പറഞ്ഞ പ്രാവാണെങ്കിലും ശരി കാക്കയാണെങ്കിലും ശരി മറ്റുള്ള ഏത് സാധനത്തിനാണെങ്കിലും ശരി മൃഗങ്ങളായാലും ശരി എല്ലാവരും വരും അതിന് നമ്മളത് കൊടുക്കാനും അവരോടുള്ള സ്നേഹം പങ്കുവയ്ക്കാനും അതിലുപരി അവരെ ഉപദ്രവിക്കില്ല്യ എന്ന് ഉറപ്പു വന്നാൽ നമ്മുടെ വീട്ടുമുറ്റത്തിലേക്കും പൂന്തോട്ടത്തിലേക്കൊക്കേ ധാരാളം പക്ഷികളെ നമുക്കാകർഷിക്കാൻ പറ്റും അവര്ക്ക് കൃത്യമായി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണംന്ന് മാത്രെ ഉള്ളൂ ധാന്യം വെള്ളമൊക്കെ വയ്ക്കാറ് വെച്ചാൽ എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ എന്തെങ്കിലും കൊടുക്കും അപ്പോൾ ഇഷ് ഈ പറഞ്ഞ പക്ഷികളൊക്കെ വരണോണ്ട് അത് കൃത്യമായിട്ട് അതിനോട് നമുക്കൊരു ആഭിമുഖ്യണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു പരിപാടിയാണ് ആകർഷിക്കാൻ എന്നതിലുപരി അത് നമുക്ക് പുണ്യം കിട്ടുന്ന ഒരു പുണ്യ പ്രവർത്തി ആയിട്ട് കൂടി കാണാൻ പറ്റും